ഇന്ത്യൻ മാധ്യമങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം തന്നെയാണ് കാരണം എന്താന്നുവെച്ചാൽ അവരാൽ കഴിയുന്ന നല്ല വാർത്തകൾ ആളുകളിലേക്ക് എത്തിക്കാൻ അവർ പരിശ്രമിക്കാറുണ്ട് എന്നാണ് എനിക്ക് തോന്നീട്ടൊള്ളത് അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഏതു സംഭവങ്ങളാണെങ്കിലും എന്തു പ്രശ്നങ്ങളാണെങ്കിലും മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് അറിയിക്കാൻ അവർ പരിശ്രമിക്കാറുണ്ട് അവർ അറിയിക്കുന്ന വാർത്തകൾ ശരിയായവസ്ഥകളാണൊ അവർ അവതരിപ്പിക്കുന്നത് എന്നുള്ളതിൽ എനിക്ക് പൂർണ്ണ മായി അറിയില്ല യോജിപ്പില്ല എന്നിരുന്നാൽപ്പോലും കൃത്യമായുള്ള ശരിയായകാര്യങ്ങൾ അവതരിപ്പിക്കാനായി അവരെപ്പോഴും പരിശ്രമിക്കാറുള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് ആ ചാനൽ എന്നു പറയുമ്പോൾ എല്ലാവിധത്തിലും നല്ല വാർത്താ ചാനലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെതന്നെ മഴ് മനോരമ ന്യൂസ് അതെല്ലാം എപ്പോഴും നല്ല വാർത്തകൾ ശരിയായ വാർത്തകൾ എപ്പോഴും കാര്യങ്ങൾ പുതിയ പുതിയ അറിയുന്നത് ആളുകൾക്കെത്തിക്കാൻ ശ്രമിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾത്തന്നെ ഒരു പ്രശസ്തമായി എല്ലാ ചാനകളിലും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം കോഴിക്കോടുകാരൻ വണ്ടിയുമായി നമ്മുടെ മണ്ണിടിച്ചൽ സംഭവിച്ചപ്പോൾ അപകടത്തിൽപ്പെട്ടത് ഇന്നും അതിനുള്ള എല്ലാവിധ കാര്യങ്ങളും നടപടികളും നടന്നുകൊണ്ടിരിയ്ക്കയാണ് ആ ചേട്ടന്റെ വണ്ടി എവിടെയാണ് ആ സിഗ്നലിപ്പം കാണപ്പെടുന്നത് എന്നല്ലാം നമ്മുടെ നാവികസേന ഉൾപ്പടെ ഒരുമിച്ചു നിന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിയ്ക്കയാണ് എട്ട് ഒൻപത് ദിവസത്തോളമായി എങ്കിൽപ്പോലും ഒരിക്കലും ഇത്രയും ദിവസം ആയല്ലൊ അതിനാൽ ഇനി വേണ്ട നിർത്തിയേക്കാം എന്നും ആരും ചിന്തിക്കുന്നില്ല പകരം ഒരുമിച്ചു നിന്ന് ആ ചേട്ടന്റെ ശരീരം ആ വാഹനം കണ്ടുപിടിക്കാനുള്ള പരിശ്രമത്തിലാണ് എല്ലാവരും ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കൃത്യമായിത്തന്നെ ഇപ്പം ഒരു സിഗ്നൽ കിട്ടിയാൽ അല്ലെങ്കിൽ എവിടെയാണെന്നു ചെറിയൊരു സൂചന കിട്ടിയാൽ ഉടനെതന്നെ അതു കൃത്യമായി ന്യു ന്യൂസ് ചാനലുകളിലൂടെ അവർ അറിയിക്കാൻ ശ്രമിക്കാറുണ്ട് അതോടൊപ്പം തന്നെ മഴ സമയങ്ങളിൽ രണ്ടായിരത്തിപതിനെട്ടിൽ നടന്ന വെള്ളപ്പൊക്കത്തിന്റെ സമയങ്ങളിലൊക്കെ അ അവരുടെ കുടുംബത്തേയൊ അല്ലെങ്കിൽ അവരെയൊന്നും ശ്രദ്ധിക്കാതെ മാനിക്കാതെ മറ്റുള്ളവർക്ക് എന്തൊക്കെ സംഭവിച്ചു എന്തൊക്കെ ഇവ എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി മറ്റുള്ളവരിലെത്തിക്കാനായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കാറുണ്ട് നല്ല നല്ല പരിപാടികൾ ന്യൂസ് ചാനലിൽ നടത്താനായിട്ട് അവർ ശ്രദ്ധിക്കാറുണ്ട് അതോടൊപ്പം തന്നെ നടന്നതാണ് ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ചതും റോഡിൽക്കൂടി വസ്ത്രം പോലും ഇല്ലാതെ പെൺകുട്ടിയെ കുറേ ആണുങ്ങൾ കൊണ്ടുപോയ കേസുകളും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിലും എല്ലാം നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയിക്കാറുണ്ട് കഴിഞ്ഞദിവസം കുവൈറ്റിൽ നടത്തപ്പെട്ട വെച്ച് നടന്ന തീ പിടിത്തത്തിലൂടെ ധാരാളം ഒരു പത്തിരുപതിലേറെ മലയാളി സുഹൃത്തുക്കൾ മാത്രം മരണപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് വളരെ ദയനീയമായ അവസ്ഥയാണ് പക്ഷെ എങ്കിൽപ്പോലും അതു കണ്ടുനിന്നാൽ കണ്ണു നിറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ആ ഒരു വാർത്ത ചാനലിലൂടെ അല്ലെങ്കിൽ വാർത്തകൾ അവർ അറിയിക്കുമ്പോൾ അവരുടെ ഉള്ളിലും നല്ല വിങ്ങലുണ്ട് അവരിൽ അവരുടെ ഒരു സഹോദരനാണ് അല്ലെങ്കിൽ സഹോദരിയാണല്ലൊ എന്നുള്ളത് വിങ്ങലുണ്ട് ചിലപ്പം അപകടത്തിലായതൊ അപകടത്തിൽ കിടക്കുന്നതൊ സ്വന്തം സഹോദരങ്ങളെ അല്ലെങ്കിൽ കുടുംബക്കാരാണ് ആണെങ്കിൽപ്പോലും അതൊന്നും അതെല്ലാം മാറ്റിവെച്ച് ചാനലിൽ നിന്ന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ധാരാളം അ ആളുകളുണ്ട് അപ്പം മാധ്യമപ്രവർത്തകരും നമ്മുടെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ എല്ലാം എല്ലാതരത്തിലും നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം ഇന്നു നമ്മുടെ തൊട്ട് അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളിൽപ്പോലും ചിലപ്പം നമ്മൾ അറിയാത്ത സാഹചര്യങ്ങൾ കൂടി കാലഘട്ടത്തിലൂടെ നടന്നുപോകുന്നവരാണ് നമ്മൾ ആകെ ദൂരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയണം എന്നുണ്ടെങ്കിൽ ഏറെക്കുറെ ഈ മാധ്യമങ്ങൾ ഇല്ലാതെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല ആ ഒരു കാര്യത്തിൽ ലോകമെമ്പാടുമുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൽ ഇന്ത്യൻ മാധ്യമം എപ്പോഴും അവരുടെ നല്ലതുതന്നെ ഏറ്റവും നല്ലതു തന്നെ നൽകുവാൻ അവർ ശ്രദ്ധിക്കാറുണ്ട്